സ്റ്റാമ്പിൻ്റെ നാണയത്തിൻ്റെയും കല്ലിൻ്റ മൂല്യം അത് കല്ലിന്റെയൊക്കെ മൂല്യം തിരിച്ചറിയുന്നതിന് വിലയിരുത്തുന്നതിനു നമുക്കിപ്പോൾ നിലവില് അതിൻ്റേതായ സാങ്കേതിക സംവിധാനങ്ങള് അത് ഒന്നും നമുക്ക് നിലവിൽ നമുക്ക് ഇവിടെ ഇല്ല അതിന് അത് ഒന്നു ശരിക്ക് അതു നിർണ്ണയിക്കേണ്ട ഒരു സംവിധാനങ്ങള് മാർക്കറ്റില് ശരിക്കും അവൈലബ്ളാണ് എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു കൂടുതൽ നമുക്കാവശ്യങ്ങളില്ലാത്തത് കാരണമാണത് അതു നമുക്കു കൂടുതല് അവൈലബ്ളാകാത്തത്

സാധാരണ കല്ലിൻ്റെയൊക്കെ മൂല്യമൊക്കെ തിരിച്ചറിയുന്നതു കൂടുതലും നമ്മള് ജുവല്ലറികളിലും അങ്ങനെയുള്ള സംവിധാനങ്ങളിലാണ് സ്ഥാപനങ്ങളിലൊക്കെയാണ് ബാങ്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണു കൂടുതല് കല്ലിൻ്റെയൊക്കെ ഇത് അറിയുന്നത് സ്റ്റാമ്പും നാണയവുമൊക്കെ ഗവൺമെന്റുമായിട്ടു ബന്ധപ്പെട്ടിരിക്കുന്നതു കാരണം സാധാരണക്കാരൻ്റെ കയ്യില് അങ്ങനെയുള്ള അത് തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും നിലവില് സാധാരണ ആളുകൾക്ക് അത് ആവശ്യമുള്ള ഒരു കാര്യമല്ല അതു ശരിക്കും അതൊരു ഗവൺമെൻ്റ് സംവിധാനങ്ങൾക്ക് മാത്രമാണ് അതിനെ ഈ സ്റ്റാമ്പിൻ്റെയും നാണയത്തിൻ്റയൊക്ക മൂല്യം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യങ്ങള് നിലവില് നമുക്കു വരുന്നുള്ളൂ ശരിക്കും ഇത് ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു ഒരു കാര്യം അല്ല ഇതിന്റെ മൂല്യ നിർണയം എന്നു പറയപ്പെടുന്നത് ആ അതുകൊണ്ട് ഇത് സാധാരണക്കാർക്ക് ഒരു ആ ഒട്ടും തന്നെ ഒരു ആവശ്യമില്ലാത്ത ആ ഒരു സംഭവമാണ് ഇതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നത് നമ്മൾക്ക് ശരിക്കും സ്റ്റാമ്പുകള് നാണയങ്ങള് നമ്മള് കൂടുതലുപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതു നമുക്കു രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ സ്റ്റാമ്പും നാണയങ്ങളെല്ലാം ഏകദേശം എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്

അതുകൊണ്ട് നമ്മള് അത് ഗവൺമെൻ്റാണ് അത് നിയന്ത്രിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം സംവിധാനങ്ങളെല്ലാം ഗവൺമെൻ്റിന്റെ കൈവശമാണതിന്റെ സംവിധാനങ്ങളെല്ലാം ഉള്ളത് സാധാരണക്കാരന് അത് അതിന്റെ മൂല്യം തിരിച്ചറിയാനുള്ള ആ ഒരു സംവിധാനങ്ങള് ഇല്ല നിലവിലില്ല ശരിക്കും ഒരു സംവിധാനം എന്നു പറയുമ്പോൾ അത് ഗവൺമെൻ്റിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റാമ്പുകളും മറ്റും സർവ്വസാധാരണമായിട്ടിപ്പോൾ നിലവില് സ്റ്റാമ്പ് പേപ്പറുകള് സംഭവങ്ങളൊക്കെയാണേലും ഇന്ന് ശരിക്ക് ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലാണിപ്പോള് നമുക്ക് സ്റ്റാമ്പ് പേപ്പറുകള് സംഭവങ്ങളെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനില് നമ്മള് ആ അപേക്ഷ വച്ച് അതു കൂടുതല് കൃത്രിമമായ മാർഗങ്ങളിൽക്കൂടി സ്റ്റാമ്പ് പേപ്പറുകള് സംഭവങ്ങള് ഉൽപാദിപ്പിക്കുന്നത് തടയാന് വേണ്ടിയിട്ടാണ് ഗവൺമെൻ്റ് മെയിനായിട്ട് ഈ സംഭവങ്ങള് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലും ഒരു സുതാര്യമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻ്റെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇത് ഓൺലൈനിലാക്കുക എന്നുള്ളത് നാണയമാണേലും ഓരോ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ വരുന്ന ഒരു സംഭവമാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥകളിലെ എല്ലാം അത് രൂപയുടെ അതിൻ്റെ രൂപയുടെ മൂല്യം സംഭവങ്ങളിലാണ് എല്ലാം ആ ഉള്ളത് അതെല്ലാം എല്ലാം കാര്യങ്ങളിലും ഗവൺമെൻ്റില് നിക്ഷിപ്തമാണ് ഗവൺമെൻ്റാണ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുന്നത് ഗവൺമെൻ്റ് റിസർവ് ബാങ്കാണ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതുമെല്ലാം നമ്മൾക്ക് അതിൻ്റെ പ്രത്യേക സാങ്കേതിക വിദ്യകളോ സംഭവങ്ങളോ ഒന്നും നിലവില് നമുക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആള്കൾക്കതാവശ്യമില്ലാത്തൊരു സംഭവമാണ് അതിൻ്റെ യന്ത്രങ്ങളൊന്നും സാധാർണക്കാരനായ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സംഭവ സംഗതികളാണ് അതു കാരണം കൂടുതലതിനെക്കുറിച്ച് അങ്ങനെ സംഭവങ്ങളോ ഒന്നും നമ്മുടെ കയ്യില് ഇല്ല